ഇന്ത്യയുടെ വിവിധ വിവിധ പ്രദേശങ്ങളിൽ നമ്മളുടെ മലയാള ഭാഷയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ് മലയാളഭാഷ എന്താ പറയാ ഒര്തൂ ഒരു ഫിഫ്റ്റി പേഴ്സെൻറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി അതായത് ഫിഫ്റ്റി പേഴ്സെൻറ്റെജ് ആളുകളും നമ്മൾ സംസാരിക്കുന്നത് എറ്റോം കൂടുതൽ സംസാരിക്കുന്നത് മലയാള ഭാഷയാണ് അത് ഇന്ത്യയിൽ കു പറയണതാണെങ്കിൽ വേറെ ഭാഷകളുണ്ട് അപ്പോൾ കൂടുതൽ അറിയാവുന്നത് മലയാളമാണേറ്റോം പഠിച്ചെടുക്കാൻ എളുപ്പമുള്ള ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് ഏറ്റോം കൂടുതലാളുകൾ ഉപയോഗിക്കുന്നത് മലയാളമാണ് ഇന്ത്യേൽ പല പല സ്ഥലങ്ങളിൽ നമുക്കറിയാം അപ്പം ഇന്ത്യേൽ വിവിധ പ്രദേശങ്ങളിലെ സാംസ്കാരിക വിനിമയത്തിൽ എന്താ പറയാ അല്ലെങ്കിൽ ആശയവിനിമയത്തിൽ മലയാളഭാഷക്കുള്ള പങ്ക് ഏറ്റവും വലുതെന്ന രീതീലാണ് നമുക്ക് പറയാനുള്ളത് മലയാളം മറ്റു ഭാഷകളെ പോലെ തന്നെ മലയാളത്തിനും അതിൻറ്റേതായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് മലയാളം ഭാഷ ഇന്ന് സ്കൂള്കളിലും അതുപോലെ തന്നെ പല സ്കൂള്കളിലും ഇന്ന് മലയാളം ഭാഷ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒഴിവാക്കിയ മലയാളം ഭാഷയെ പിന്നെയും കയറ്റുകയാണ് ഒരു സബ്ജക്റ്റായിട്ട് മലയാളം വരികയാണ് വേറെന്ത് സബ്ജക്റ്റുണ്ടായാലും മലയാളം എന്നതൊരു പ്രാദേശിക ഭാഷയായിട്ട് വേണമെന്ന് എല്ലാ സർക്കാർ എല്ലാവരും നിർബന്ധം പിടിക്കുകയാണ് അപ്പം മലയാളം നമുക്ക് എന്താ പറയാ നമ്മളുടെ അമ്മയാണ് അമ്മ എന്ന രണ്ട് അക്ഷരം കുഞ്ഞ് ഉച്ചരിക്കുന്നത് എന്താ പറയാ മലയാളത്തിലാണ് ജനിച്ച ഉടനെ ഒരു കുഞ്ഞ് ഏറ്റോം കൂടുതലുച്ചരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് അമ്മ എന്ന രണ്ട് അക്ഷരമാണ് അതേതാ അക്ഷരം അത് ആ ഒരു അക്ഷരം എന്ന് പറയുന്നത് എന്താ പറയാ അതൊരു മലയാളം വാക്കാണ് അപ്പം മലയാളത്തിന് അതിൻ്റെതുൾ ആയിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കണം അല്ലെങ്കിൽ പ്രാധാന്യം വേണം മറ്റു ഭാഷകളെ അപേക്ഷിച്ച് മറ്റ് ഭാഷകൾ പഠിച്ചാൽ നമുക്ക് എന്താ പറയാ രക്ഷപ്പെടാൻ പറ്റുള്ളു എന്നുള്ളൊരു തോന്നലീ സമൂഹത്തിനുണ്ട് പക്ഷേ അല്ല മലയാളത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു പങ്കുണ്ട് നമ്മുടെ ഓ യെൻ വിയായാലും എഴുത്തച്ഛനായാലും അവരെല്ലാവരും നമ്മളുടെ എന്താ പറയാ മലയാളം നോവലിസ്റ്റ് അല്ലേ റൈറ്ററ് മാരെല്ലാവരും മലയാളത്തിന് അതിൻറ്റേതായിട്ടുള്ളൊരൂ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്പം മലയാളം എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയാണ് അല്ലെങ്കിൽ മലയാളം ഭാഷ എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയാണ് അപ്പം അമ്മയേ പെറ്റമ്മയേ എന്താ പറയുക മുല കുടിക്കുന്ന കുഞ്ഞ് ഒരു ഉപേക്ഷിക്കുമോ ഇല്ല അതേപോലെ തന്നെയാണ് മലയാളഭാഷയ്ക്കുള്ള പങ്കും